ഇപ്പം ചിത്രരചനയെ കുറിച്ച് പറയുവാണെങ്കിൽ ചിത്രരചന കൂടുതൽ ആൾക്കാർക്കും നമ്മളെന്താ പറയാ ഒരു ക്ഷമ അതുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണമെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ചിത്രം വരക്കുമ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമക്കതിൻ്റെയൊരു പൂർണ്ണ രൂപതയിലെത്താൻ പറ്റൂള്ളൂ ഇപ്പോൾ നമ്മൾ പകുതി വരച്ച ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതായത് ഇപ്പോൾ നമ്മൾ ചിത്രം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണ രൂപതയിലെത്താൻ രൂപ എന്താ പറയാ രൂപത്തിലെത്തണമെങ്കിൽ കുറെ ദിവസങ്ങളൊക്കെ എടുക്കേണ്ടിവരും ചിലപ്പോൾ കുറെ മാസങ്ങളെടുക്കേണ്ടിവരും ചിലപ്പം വർഷങ്ങളെടുക്കേണ്ടിവരും അപ്പം നമ്മളതുവരെയൊക്കെ വെയിറ്റ് ചെയ്ത് അതിനോട് കുറച്ച് ഇതിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമക്കതൊരു പൂർണ രൂപത്തിലെത്താൻ കഴിയുള്ളു അപ്പോൾ നമുക്ക് മനുഷ്യന് ക്ഷമിക്കാനുള്ളൊരു കഴിവ് നമ്മളെ മനുഷ്യൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പല കാര്യങ്ങൾക്കും ക്ഷമ ക്ഷമാന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ നിഘണ്ടു തന്നെ ഇല്ലാത്തൊരു അവസ്ഥയൊക്കെയാണ് അപ്പോൾ നമ്മൾ ചിത്രം ചിത്രമൊക്കെ വരയ്ക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ക്ഷമ കാര്യങ്ങളൊക്കെ വരണം അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടാകും പിന്നെ അച്ചടക്കവും അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മിണ്ടാണ്ടിരിന്നിട്ടൊക്കെ ആയിരിക്കും വരയ്ക്കുക അപ്പോൾ ഒരു അച്ചടക്ക രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഭാവന അതൊക്കെ വന്നിട്ടുണ്ടാവും നല്ല രീതിയിലുള്ള ഭാവനയും കാര്യങ്ങളൊക്കെ ഉണ്ടങ്കിലേ നല്ല രീതിയിലുള്ള ഒരു ചിത്രം വരച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളു